പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവരെ കഴിവിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സംഗതി എന്ന് പറഞ്ഞാൽ എന്നും പാടുക സാതകം ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മുടെ തൊണ്ടയിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പാടാൻ നമുക്ക് വരുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ എന്നും പ്രാക്റ്റീസ് ചെയ്യണം എന്നാൽ തന്നെയാണ് നമുക്കത് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോവാൻ സാധിക്കുകയുള്ളൂ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വർണം കീർത്തനം അങ്ങനെയൊക്കെ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ബേസ് ആയിട്ടുള്ള സപ്ത സ്വരങ്ങളിൽ നമ്മൾ കുറേ വരിശകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആദ്യത്തിൽ അതാണ് എന്നും പ്രാക്റ്റീസ് ചെയ്യേണ്ടത് അത് മുടങ്ങാതെ ചെയ്താൽ തന്നെ നമുക്കേത് പാട്ടും അനായാസേന പാടാൻ സാധിക്കും അപ്പം അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാ കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ആഗ്രഹം മാത്രം പോര അതിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കുക കൂടി വേണം അതിന് നമ്മൾ അവസരങ്ങൾ മുതലാക്കണം അവസരങ്ങൾ ചോദിക്കാൻ പറ്റുന്നത് നമ്മൾ ചോദിച്ച് മേടിക്കണം കിട്ടുന്ന അവസരം ഒരിക്കലും ഒഴിവാക്കരുത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടൊരിക്കലും മാറി നിൽക്കരുത് മടി വിചാരിക്കരുത് എല്ലാ അവസരങ്ങളിലും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം നമ്മുടെ അവസരങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ശ്രമം തന്നെ നടത്തണം പിന്നെ നമ്മൾ അന്തർമുഖരായി പോവരുത് എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കുറവുകളെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും അഭിമുഖീകരിക്കാനുള്ളൊരു കഴിവ് തന്നെ വരും അപ്പം നമ്മൾ അങ്ങനെ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിലും പാടാവുന്ന ഒരു ധൈര്യം കിട്ടും അതുകൊണ്ട് എല്ലാവരും അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യണം എന്നാണ് പറയുക പിന്നെ ഭക്ഷണ ക്രമം നല്ലവണ്ണം ശ്രദ്ധിക്കണം നമ്മുടെ തൊണ്ടയ്ക്കൊരു കുഴപ്പവും വരാതെ നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ തണുത്ത ഭക്ഷണം ഒഴിവാക്കുക ചൂടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക അധികം ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക വഴക്കുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അങ്ങനെ തൊണ്ടയ്ക്ക് സ്ട്രെയ്ൻ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ അത് തീരെ ഒഴിവാക്കുക തന്നെ വേണം അതൊക്കെ നമ്മുടെ പാട്ടിൻ്റെ ഭംഗി കൂട്ടുകയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹമുള്ള എല്ലാവരും മാക്സിമം പ്രാക്റ്റീസ് ചെയ്യുക ഓരോ അവസരത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങി ചെല്ലുക കിട്ടുന്ന അവസരം ഒരിക്കലും മടി വിചാരിച്ച് വേണ്ട എന്ന് വയ്ക്കാതിരിക്കുക